ഞാൻ കൂടുതലായിട്ടും വളർത്തുന്ന ചെടിയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെടികളങ്ങനെ വളർത്താറില്ല നമുക്ക് കൂടുതലായിട്ടും ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഇപ്പം വളർത്താറ് കാരണം ആരോഗ്യ നില വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് എൻ്റെ പോകുന്നത് നല്ല രീതിയിലുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ കൊണ്ടു നാടാറുണ്ട് പിന്നെ നമുക്ക് പൈസക്കാവശ്യമുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വാഴകൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാടാറുണ്ട് അതൊക്കെ പൊ പുറമെയുള്ള കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഞാൻ പച്ചക്കറിയാണ് നാടാറുള്ളത് അതിനു വളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും മണ്ണിര കമ്പോസ്റ്റ് ചാണകം നമ്മുടെ ചാരം ഇതാണ് കൂടുതലായിട്ടും ഇടാറ് കാരണം പുറമെയെന്ന് വരുന്നത് ഫുള്ള് രാസ വളം അടിച്ചിട്ട് എന്തെങ്കിലും കെമിക്കലൊക്കെ അടിച്ചിട്ട് വരുന്നതാണ് നമുക്ക് പല അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ വരും അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പച്ചക്കറിയെന്ന് പറയുമ്പോൾ അത് നമ്മുടെ അതെ രീതിയിൽ വളം ഉപയോഗിച്ചിട്ട് വളർത്തുകയാണെ അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് എല്ലാറ്റിനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്